തൊണ്ട വേദനക്ക് ഏറ്റവും ഉത്തമം ചുക്കു കാപ്പി വളരെ നല്ല ഒരു ഔഷധമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ചുക്ക് എന്ന് പറയുന്നത് തൊണ്ടയിലെ കുത്തലും അതായത് തൊണ്ട സംബന്ധമായ വേദനകളും എന്തുണ്ടെങ്കിൽ ചുക്ക് അത്യുത്തമം എന്നാണ് എല്ലാരും പറയാറ് ചുക്ക് ഒരു നല്ല ഒരു ഔഷധം തന്നെ അതല്ലാതെ പല ഔഷധങ്ങളും ഉണ്ട് അതിൽ ഒന്നാണ് പനിക്കൂർക്ക ഇല പനിക്കൂർക്കയുടെ ഇലയുടെ നീര് പിഴിഞ്ഞ് നമ്മൾ സ്പൂണിലാക്കി ഒരു സ്പൂൺ ഒരു സ്പൂൺ കുടിക്കുക അങ്ങനെ ഇടപെട്ട് നാല് നേരമായി കുടിക്കുയാണെങ്കിൽ തൊണ്ടവേദന ശീക്രം തന്നെ മാറുന്നതാണ് ഈ പനിക്കൂർക ഇല പിഴിഞ്ഞിട്ട് കുട്ടികൾക്കാകുമ്പം ഒരിക്കലും നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം കുറച്ചു കയ്പ്പൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ പനിക്കൂർക്ക ഇലയിൽ ലേശം തേൻ അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചത് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ തൊണ്ട വേദന കുട്ടികളിൽ കുട്ടികളിൽ നല്ലതുപോലെ മാറ്റം സംഭവിക്കും അതായത് തൊണ്ടവേദന പാടെ മാറും അതല്ലാതെയും ഇനിയുമുണ്ട് അതായത് ചെറിയ ഉള്ളി ചെറിയ ചുവന്നുള്ളി നമ്മൾ ഒന്ന് ചീനച്ചട്ടിയിൽ ഇട്ട് ചൂടാക്കണം അതായത് ചെറുതായിട്ട് വാട്ടി എടുത്തതിനു ശേഷം അതിൻ്റെ ചൂടാറിയിട്ട് അത് അത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക അതിൽ നിന്ന് കുറച്ചു നീര് വരും ആ നീരും കുറച്ച് ശർക്കര ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക അതും വളരെ നല്ലൊരു ഔഷധമാണ് ഈ ചുവന്നുള്ളിയും ശർക്കരയും കൂടിയുള്ള കൂട്ട് തൊണ്ടവേദന നല്ല പോലെ മാറും വേറെ ഒന്നുള്ളത് തൊണ്ട വേദനയ്ക്ക് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ഉപയോഗിക്കുക ചെയ്യരുത് തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ തൊണ്ടവേദന കൂടാനെ ചാൻസ് ഉള്ളൂ ചൂടുവെള്ളം കൂടെ കൂടെ കുടിക്കുക ഈ ചൂടുവെള്ളം നമ്മൾ തിളപ്പിക്കുമ്പം അതിനുള്ളിൽ പനികൂർക്കയുടെ ഇല ഇട്ട് തിളപ്പിക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും തൊണ്ടക്ക് നല്ല സുഖം ലഭിക്കും അങ്ങനെ ഈ ഔഷധങ്ങളെല്ലാം തന്നെ തൊണ്ടവേദന പാടെ മാറ്റാൻ നമ്മളെ സഹായിക്കും